ഇപ്പോൾ എൻ്റെ ഒരു സാഹചര്യം നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ടാപ്പ് വെള്ളം ഞങ്ങൾ കണക്ഷൻ എടുത്തിരിക്കുന്ന ആൾക്കാരാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ കിണർ വറ്റും വറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും പിന്നെ കാണാ കാണത്തില്ല പിന്നെ വെള്ളം നമ്മൾ പുറത്തുനിന്ന് അടിപ്പിക്കേണ്ടി വരും പിന്നെ ഈ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമ്മൾ ഈ പൈപ്പ് കണ്ണക്ഷനിലോട്ട് പോവുകയായിരുന്നു അതായത് ഈ കൊടും കൊടും വിലയാണ് നമ്മൾ വെള്ളം വെളിയിൽനിന്ന് അടിപ്പിക്കുമ്പോഴത്തേക്കും കാരണം വേനൽ കാലത്ത് അടിക്കുമ്പോൾ അടിപ്പിക്കുമ്പോഴത്തേക്കും വെള്ളത്തിന് വൻ ഡിമാൻഡ് ആണ് ആ ഡിമാൻഡ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ലിറ്ററിന് ഒരു ടാങ്കിന് അവർ ചിലപ്പോൾ ആയിരം ആയിരത്തിയഞ്ഞൂറ് രൂപ ഒക്കെ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് താങ്ങാനായിട്ടുള്ള ശേഷി ഇല്ലാത്തതു കൊണ്ട് നമ്മൾ ത ടയ് ഈ ടാപ്പിന് ഈ ടാപ്പ് വയ്ക്കാൻ നമ്മൾ നിർബന്ധിതരാ ആവുകയായിരുന്നു പക്ഷേ വെള്ളം ക്ലോറിൻ ആണ് പക്ഷേ നമുക്ക് ഒരിക്കലും നമ്മളുടെ തുണി അലക്കാനും മറ്റും പാ പാത്രം കഴുകാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ നമുക്ക് കുടിക്കാനോ അല്ലെങ്കിലൊന്ന് കുളിക്കാനുമൊന്നും നമുക്ക് പറ്റത്തില്ല നമുക്ക് കുളി കുളിക്കാൻ ചിലപ്പോൾ പറ്റും ചില സമയങ്ങളിൽ കുളിക്കാൻ പറ്റും പക്ഷേ അതെന്താണ് കുളിച്ചാൽ ഈ ക്ലോറിൻ്റെ സൈഡ് എഫക്ട് കാരണം മുടി പൊഴിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും നേരിടാറുണ്ട് പിന്നെ കുടിക്കാൻ ഒരിക്കലും പറ്റത്തില്ല ക്ലോറിൻ ആണ് കൂടുതൽ ക്ളോ ക്ളോറിൻ ചുവയാണ് ചിലപ്പോൾ ചേറൊക്കെ ചേറിൻ്റെ ചെറിയ ചുവയൊക്കെ വരാറുണ്ട് അതെന്തുഒണ്ടാണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോഴത്തേകും ഒരിക്കലും ശുദ്ധമാ ശുദ്ധമല്ല വെള്ളം പിന്നെ നമ്മൾ കുടിക്കാനായിട്ട് നമ്മൾ ഈ ടാ കിണറ്റിൽനിന്ന് തന്നെ നമ്മൾ കോരി കുറച്ച് കുറച്ചായിട്ട് കോരി കോരി എടുക്കുകയാണ് ചെയ്യുന്നത്